ആ ഇത് വയനാട്ടിലെ ഗൈഡ് അല്ലേ ആ സാർ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ആയിരുന്നേ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് വയനാട്ടിലേക്ക് ഒന്ന് വരുന്നുണ്ടേ നമ്മൾ ഇച്ചിരി ട്രിപ്പ് പോലെ ഉള്ള രീതിയിലാണ് വരുന്നത് നമുക്ക് അവിടുന്ന് വയനാട്ടിലെ ഫോറസ്റ്റ് ഏരിയ വൈൽഡ്ലൈഫ് സാങ്ച്വറിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരുന്നേ ഉണ്ടല്ലേ ആ ഓക്കെ അപ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ രാവിലെ മോർണിംഗ് വന്നുകഴിഞ്ഞാൽ അവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ്

ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് കാട്ടിലേക്ക് പോവുന്നത് ഒക്കെ എങ്ങനെയാണ് ആ നോർമൽ ജീപ്പ് ആണോ ആ ഓക്കെ ഓക്കെ മനസ്സിലായി

അല്ല ഇത് നമുക്ക് അപ്പം സേഫ് ആണോ വല്ല കടുവയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഈ വണ്ടികളിൽ

അല്ല നമ്മൾ ഇപ്പോൾ എന്താണ് പറയുക ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഈ ഇൻസ്റ്റായിലൊക്കെ റീൽ കാര്യങ്ങളൊക്കെ കാണുമ്പം അതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പം ഈ ആനകളൊക്കെ വണ്ടീനെ ഒക്കെ ഇതാക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ബൈക്ക് ആയാലും കാർ ആയാലും ആ ഓക്കെ ഓക്കെ ആ പേടിക്കേണ്ടായിരിക്കും അല്ലേ ആ ഓക്കെ സാർ ആ ഓക്കെ ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് ഈ വീക്ക് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആഴ്ച തന്നെ എത്തും മിക്കവാറും ഒരു മൺഡേ ഒക്കെ എത്തുള്ളൂ മ് ഓക്കെ ആ ആ ഓക്കെ സാർ